ഹലോ ആ പറഞ്ഞോളൂ ആ വയ്ക്കണം വയ്ക്കണം ക്ലാസ്സിൽ ആ ടീച്ചറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആ അതെ പിന്നെ ക്ലാസ്സിൽ നാടൻ പാട്ട് വള്ളപ്പാട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ കാണുമായിരിക്കും ഒരുപാട് പിള്ളേർ ഉണ്ടെങ്കിൽ കാണുമായിരിക്കും ആ പിന്നെ ഒന്നോ രണ്ടോ പിള്ളേർ ഉണ്ടെങ്കിൽ അവർ ബാക്കി പ്രാക്ടീസ് ചെയ്ത് എടുത്തോളുമല്ലോ അതെ അതെ ആ ആ പുലികളിയൊക്കെ ഇറക്കിയാൽ ഒരു രസം ആയിരിക്കും ആ ആ അത് പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത് സാരി എങ്കിൽ സാരി പാവാട എങ്കിൽ പാവാട പിള്ളേർ പിന്നെ ആൺപിള്ളേർ പിന്നെ മുണ്ടൊക്കെ ആയിരിക്കുമല്ലോ ആ സാരിയോ പാവാടയോ ബ്ലൗസോ അവർക്കേതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇട്ടോട്ടെ ടീച്ചേഴ്സിൻ്റെ കാര്യം എങ്ങനെയാണ് ടീച്ചേഴ്സ് എല്ലാവരും സാരി ആയിരിക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് സെറ്റ് സാരി ആണോ അതോ നോർമൽ സാരി ആയിരിക്കുമോ അതെ അല്ലേ ആ അങ്ങനെ പിന്നെ യൂണിഫോം കോട്ട് വേണോ ടീച്ചേഴ്സിന് എന്നുള്ളത് ചോദിക്കണം ആ അത് ശരിയാണ് അതെ അത് മതി പിന്നെ പായസം പറഞ്ഞിട്ടുണ്ട് ക്ലാസ് വൈസ് ആണ് പായസം പറയണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പായസം എൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പതെണ്ണം ടീച്ചറുടെ ക്ലാസ്സിലെ പറഞ്ഞോ കൊടുത്തിട്ടുണ്ടല്ലേ അത്തപ്പൂക്കളം എല്ലാ ക്ലാസ്സിനും ഉണ്ടല്ലേ ആ ക്ലാസ് വൈസോ അതിന് പൂവൊക്കെയോ ആ പിള്ളേരെ കോമ്പറ്റീഷന് പൂവ് ആരാണ് അറേഞ്ച് ചെയ്യുന്നത് പൂവ് ആരാണ് അറേഞ്ച് ചെയ്യുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ട് പിള്ളേർ തന്നെയാണോ വാങ്ങിക്കുന്നത് ആ ആണല്ലേ ഈ വലിയ പൂക്കളം ഇടുന്നത് ടീച്ചേഴ്സ് പോവണം എന്നാണോ പറഞ്ഞിരിക്കുന്നത് സ്കൂളിൽ നിന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതെ അല്ലേ ആണല്ലേ സ്കൂളിൽ എത്ര മണിക്ക് എത്തണം ടീച്ചറേ പോര അല്ലേ ഈ സാരി ഒക്കെ ഉടുത്ത് രാവിലെ വരണമല്ലോ ആ അതെ അതെ സദ്യ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു ഇങ്ങനെ കുട്ടികൾക്കായിരിക്കും ആദ്യം അത് കഴിഞ്ഞ് കുട്ടികളെല്ലാം പോയിക്കഴിഞ്ഞ് ടീച്ചേഴ്സിനും കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ അറേഞ്ച് ചെയ്യണം സദ്യയും പായസവും ഒക്കെ അറേഞ്ച് ചെയ്യേണ്ട കാര്യം ഉണ്ട് ആ എ ആ ടീച്ചറേ ശരി ഓക്കെ ഓക്കെ ഓക്കെ